ഹലോ ആരായിരുന്നു ആ അതെ ആരായിരുന്നു ആണോ ഓക്കെട്ടാ ഓക്കെട്ടാ

ആ ഓക്കെ എവിഡി ആയിരുന്നു ഏട്ടാ സലം ഇട്ക്കീലാ ഓക്കെ ഓക്കെ ഇട്ക്കീലെവ്ടാർന്നു എന്താ ഷൂട്ട് അടിമാലി ആ ഓക്കെ ഓക്കെ ആ ചേട്ടൻ പറഞ്ഞോളൂ എന്നാർന്നു ഡേറ്റെക്കെ എന്നാർന്നു പന്ത്രണ്ടാം തിയതില്ലേ ഓക്കെ ഓക്കെ എനിക്ക് നെലവില് കൊറച്ച് ബുക്കിംഗുണ്ട് പന്ത്രണ്ടാംതി ഞാൻ ഡേറ്റ് നോക്കീട്ട് ഞാൻ ഇപ്പ പറയാ ഒന്ന് വെയ്റ്റെയ്യണേ ആ ഓക്കെട്ടാ പന്ത്രണ്ടാംതി ഓക്കെയാണ് അത് നിങ്ങള് ഇത് ലൈക്ക് പെണ്ണിൻ്റെ വീട്ട്കാരാണോ അതോ ചെറ്ക്കൻ്റെ വീട്ട്കാരാണോ ചെറ്ക്കൻ്റെ വീട്ട്കാരാ ഓക്കെ നമ്മള് മൊത്തത്തില്ള്ള പാക്കേജാണ് നമ്മള് ചെയ്യ്ന്നെ പ്രീ വെഡ്ഡിംഗ് ഷൂട്ട്ന്ന് മാത്രായിട്ടല്ല നമ്മള് ചെയ്യ്ന്നെ ആദ്യം സേവ് ദ ഡേറ്റില് വീഡിയോ എട്ക്കും ആദ്യം തന്നെ ഫോട്ടോയും കാര്യങ്ങളെല്ലാ ഉണ്ടാവും പിന്നെ ഇതിൻ്റെ മൊത്തത്തില് എല്ലാം കൂടി ട്ടോട്ടലായിട്ട് ഒരുമിച്ചായിരിക്കും നമ്മള് ചെയ്യ്ന്നെ പാക്കേജങ്ങനാണ് വര്ന്നെ ആ മനസിലായോ ചേട്ടന് ആ അപ്പെ നമക്ക് മൊത്തത്തില് നാല് ഫോട്ടോഗ്രഫേസാണുള്ളേ രണ്ട് വീഡിയോ ഗ്രഫേസു അപ്പം മൊത്തം ട്ടോട്ടലാറ് പേരാ ഉള്ളെ നമ്മള് അവ്ട വെരും പിന്നെ ഹെലിക്യാമ്പിലും ബാക്കി കാര്യങ്ങളെല്ലാ വെച്ചിട്ടായിരിക്കും നമ്മള് ഷൂട്ടെയ്യ്ന്നെ പിന്നേ ഇപ്പെ വർക്ക് കഴിഞ്ഞ് കേക്കാവോ ആണോ ഓ ഓക്കെ ഓക്കെ ഇപ്പ കേക്കാവോ ആ ഓക്കെ അപ്പം വർക്ക് കഴിഞ്ഞ് അഞ്ചൂസെ ഉള്ളി നമ്മള് ഫുള്ള് സാനങ്ങള് തെരും വീഡിയോയും ഫോട്ടേയുമെല്ലാ ആൽബാക്കി നമ്മള് തരും കാണാ പിന്നെ ഓക്കെ പറഞ്ഞോ ഏട്ടാ

ആ അതെ അതെ നമ്മള് അഞ്ചൂസത്തിനുള്ളി നമ്മള് എല്ലാം തരും അതി കൂട്തല് പോവത്തില്ല മേഡ ത്രീ ത്രീ റ്റു ഫൈവ് ഡേയ്സാ നമ്മളത് അഞ്ചാമത്തൂസ ഒറപ്പായിട്ടും നമക്ക് സാധന കിട്ടിയിരിക്കും പിന്ന നമ്മടെ പാക്കേജ് ഡീറ്റെയ്ൽസ് ഞാ പറഞ്ഞ പോലെ നേരത്തെ ഹെലിക്യാമ് പിന്നെ മൊത്തം എട്ട് ക്യാമറയുണ്ട് വീഡിയോക്കും ഫോട്ടോയ്ക്കും വേറെ വേറെ ക്യാമറാസാണ് പിന്നെ എഡിറ്റേഴ്സ് വേറെ ഉണ്ട് വർക്കിന് വെര്ന്ന മൊത്തത്തിലാറ് പേരായിരിക്കും പിന്നെ എഡിറ്റെയ്യാ വേറെ മൂന്ന് നാല് പേര് നമക്കെക്സ്ട്രാ ഉണ്ട് എത്രയാണ് ഇത് വെര്ന്ന നമ്മടെ പേര് ഇതിൻ്റെ പേര്ന്ന് പറയ്ന്ന മാജിക് മോഷൻ മീഡിയാന്നാണ് നമ്മടെ സ്റ്റുഡിയോടെ പേര് വര്ന്നെ നമക്കത്യാവശ്യം ഇൻസ്റ്റഗ്രാമില് ഒരു ലക്ഷത്തി ഇര്വനായിരം ഫോളോവേഴ്സ് അട്ത്തുണ്ട് യൂട്യൂബ് ചാനലുണ്ട് കാര്യങ്ങളെല്ലാ ഉണ്ട് ചേട്ടൻ്റെ വറ്ക്കെല്ലാം കണ്ടിട്ടായിരിക്കു ഇങ്ങേറ്റം വിളിച്ചേന്നാണെനിക്ക് തോന്ന്ന്നെ അതാ ആ ഓക്കെ ഓക്കെ എന്നാ പേമെൻ ഡീറ്റേൽ ആ ഓക്കെ ഓക്കെ പേമെൻ ഡീറ്റേൽസ് പറഞ്ഞോട്ടെ എന്നാ ആ പേമെൻ ഡീറ്റേൽസ് നമ്മടെ ഏറ്റം ബേസിക്ക് തൊടങ്ങ്ന്നേന്ന് പറഞ്ഞയ്ഞ്ഞാ ത്രീ ലേക്കാണ് പിന്നെ ഫുള്ള് ഫുള്ളിതായിട്ട് സെറ്റെയ്യ്ന്ന ത്രീ ലാക്ക് ഫിഫ്റ്റി തൌസൻറ്റ് വെരു ചേട്ടനോക്കെയാണന്നുണ്ടെങ്കി നമക്കത് പാസാക്കാർന്നു അല്ല അഡ്വാൻസമ്മക്ക് തരണം അഡ്വാൻസ് വൺ ലാക്കമ്മക്ക് തരണം ആ അങ്ങനാണ് ഡീറ്റേൽസ് അത് ഇപ്പം നമക്ക് പന്ത്രണ്ടാംതി വർക്കൊടങ്ങ്ന്നുണ്ടെങ്കി ചേട്ടനൊര് അഞ്ചാംതീക്കാവ്മ്പത്തേനു അഡ്വാൻസ് തരാണന്നുണ്ടെങ്കി നമ്മള് ബാക്കി ഫോട്ടോ ഗ്രഫേസിനെ വീഡിയോ ഗ്രഫേസിനെല്ലാരെ സെറ്റാക്കീട്ട് വെരാർന്നു ഞങ്ങള് പന്ത്രണ്ടാംതീ

വർക്ക് ക്യാൻസലെയ്യാനാണെങ്കി അങ്ങനാണെങ്കി ഈ അഡ്വാൻസ് തന്നേന് മൂന്ന് നാല് ദ്വസം മുമ്പ് വിളിച്ച് പറയണം ക്യാൻസലെയ്യ്ന്നുണ്ടെന്ന് പറയണം അഡ്വാൻസ് ആ അഡ്വാൻസ് അത് തെരാ അത് തരാ തരാം തരാം റീഫണ്ടബ്ളാണ് ഓക്കെ ആ വേറെന്തേലു ഡീറ്റേൽസറിയണാർന്നോ ഏട്ടാ ആ ആ ഓക്കെ നമ്മള് വെഡ്ഡിംഗിന് രണ്ടാഴ്ച്ച മുമ്പെ നമ്മടെ സേവ് ദ ഡേറ്റിൻ്റെ വീഡിയോസെല്ലാ ഷൂട്ടെയ്യും അത് വെഡ്ഡിംഗിന് നാലൂസം മുമ്പ് നമ്മള് തരും സേവ് ദ ഡേറ്റിൻ്റെ വീഡിയോ ഫോട്ടോസെല്ലം തരും അത് കയ്ഞ്ഞ് പിന്നെ നമ്മള് വെര്ന്ന വെഡ്ഡിംഗിനായിരിക്കും ഓക്കെ ഏട്ടാ ആ ശെരി ആ ഓക്കെ താങ്ക്യൂ